നമ്മുടെ ഗ്രാമത്തിലെ നർത്തകർ നേരിടുന്ന ഒരുപാട് വെല്ലുവിളികളുണ്ട് കാരണം ഇതൊരു ഗ്രാമപ്രദേശമായത് കൊണ്ട് തന്നെ അധികമായി ഫെസിലിറ്റീസ് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു കൊടുക്കുന്നില്ല എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് ഇപ്പം ആണെങ്കിലും അഭാവം ഉണ്ട് പരിശീലനത്തിന്റെ അഭാവം ഉണ്ട് പിന്തുണ കിട്ടാത്തതിന്റെ പ്രശ്നങ്ങളുണ്ട് കാരണം ഒരു ഗ്രാമപ്രദേശം ആകുമ്പോൾ ഡാന്സിൽ ഭയങ്കരം ഒരു

പക്ഷെ നമ്മൾക്ക് കുറച്ചു കൂടെ മാറിപ്പോയാൽ മാത്രമേ ഇതിനുള്ള വസ്തുക്കളും അത്പോലെ വിഭവങ്ങളുമൊക്കെ കിട്ടുകയുള്ളൂ അപ്പം അതിന്റ അഭാവം ഇവിടെ ഉറപ്പായിട്ടുമുണ്ട് പിന്നെ പരിശീലനമാണെങ്കിലും നമുക്ക് ഇവിടെ അധികം ഡാന്സ് ക്ലാസസോ ഇവിടെ ആകെ ഞങ്ങളുടെ പ്രദേശത്ത് അടുത്തുള്ളത് ഒരു ക്ലാസിക്കൽ ഡാൻസ് ക്ലാസ് മാത്രമാണ് ഇവിടത്തെ വെസ്റ്റേൺ ഡാൻസ് ക്ലാസിനോ മറ്റ് രീതിയിലുള്ള ഡാൻസുകൾക്കോ വിവിധ തരം നൃത്ത പരിശീലനങ്ങള്ക്കോ ഇവിടെ അതിനുള്ള പരിശീലനങ്ങളോ പിന്തുണയോ നൽകുന്നില്ല